എന്തായിരുന്നു ആ സാർ ബാംഗ്ലൂരിൽനിന്ന് ആണോ വിളിക്കുന്നത് ആ ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടീട്ടാണ് അല്ലേ ആ ആ ഓക്കെ ആ കടൽ മത്സ്യങ്ങൾ ഒക്കെ എല്ലാം ഉണ്ട് ഓൾമോസ്റ്റ് മത്തി ആയാലും അങ്ങനത്തെ സംഭവം ഒക്കെ ഉണ്ട് ഞണ്ട് ഉണ്ട് ആ ഞണ്ട് ഉണ്ട് ആ പിന്നെ കരിമീൻ പൊള്ളിച്ചത് ഉണ്ട് ആവോലി ഉണ്ട് നത്തോലി ഉണ്ട് ഇത് ഒക്കെ വെറൈറ്റി ഓ വെറൈറ്റി സാധനങ്ങൾ ഉണ്ട് കാരണം ഗ്രില്ല് ഉണ്ട് കറി ഉണ്ട് ഫ്രൈ ഉണ്ട് അങ്ങനെ ഒക്കെ ആ കൂന്തൽ ഫ്രൈ ഉണ്ട് ആ അതേപോലത്തന്നെ റോസ്റ്റ് ഉണ്ട് കറി വെച്ചത് ഉണ്ട് അങ്ങനെ എന്തായിരുന്നു നോക്കുന്നത് ഫിഷ് തന്നെ അല്ലെ ആ ഇപ്പം ക്രാബ് ആവുമ്പം ക്രാബിന് റേറ്റ് കൂടുന്നതെന്നു വെച്ച് കഴിഞ്ഞാൽ മറ്റേ അടിയിൽ പൊന്ന് വരില്ലേ മുട്ട ഒക്കെ വരില്ലേ അതിന് റേറ്റ് കൂടും അല്ലാത്തതിന് നോർമൽ എന്താ പറയുക ഒരു തൗസൻഡ് ഒക്കെ വരുകയുള്ളൂ എന്താ പറയുക ഇപ്പം ഒരു അഞ്ച് ആറ് ക്രാബ് ഉണ്ടാവും അതിനെ കുക്ക് ചെയ്തിട്ട് ആണ് തരുക അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ലൈവ് ഫിഷിംഗ് ഉണ്ട് ലൈവ് ആയിട്ട് നമ്മൾ കാണിച്ചുതരാം ഫിഷ് ചെയ്തിട്ട് അതിനെ ജീവനോടെ ആക്കുന്നത് എന്താ പറയുക ഫുഡ്ഡ് ആയിട്ട് വരുന്നതു വരെ കാണിച്ചുതരും ജീവനോട പിടിച്ചിട്ട് അതിനെ ഫുഡ്ഡ് ആക്കി വരുന്ന വരെ കാണിച്ചുതരും ആ ആ നിങ്ങൾക്ക് ഞങ്ങൾ കാണിച്ചുതരും ആ ഇപ്പം നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പം സാധാ നോർമൽ ഫിഷിംഗ് ചെയ്തിട്ട് ഞങ്ങളോട് കറിവെച്ചുതരാൻ പറഞ്ഞുകഴിഞ്ഞാൽ അതും ഉണ്ട് കേട്ടോ

ആ അതെ അതെ

ഒരു എത്ര പേര് ഉണ്ടാവും മിനിമം ആ ഓക്കെ അപ്പം ആ പിന്ന അതിന്റെകൂടെ കോമ്പിനേഷനായിട്ട് ഇപ്പം കപ്പ ഉണ്ട് കപ്പയെത്തന്നെ വെറൈറ്റി കപ്പ ഉണ്ട് പാൽ കപ്പ ഉണ്ട് അങ്ങനത്തെ കപ്പയൊക്കെ ഉണ്ട് ഇപ്പം ആ അപ്പം ഉണ്ട് അപ്പം അങ്ങനെ ഒക്കെ ഉണ്ട് അപ്പവും മീൻ കറിയും കപ്പയും മീൻ കറിയും പൊറോട്ടയും മീൻ കറിയും അങ്ങനയാ വരുന്നത് അത് ഇപ്പം ചോറും മീൻ ചോറും ഉണ്ട് കേട്ടോ മീൽസും ഉണ്ട് പിന്നെ ഫ്രൈ ആണെങ്കിൽ നിങ്ങൾ പറയുന്നതിന് അനുസരിച്ച് ഉണ്ടാക്കി തരുകയുള്ളൂ ഇപ്പം ഒരു ഇപ്പം നിങ്ങൾ വന്നിട്ട് ഒരു മണിക്കൂറ് മുമ്പ് എങ്കിലും പറയണം ആ ഫുഡ്ഡ് എന്താ വേണ്ടതെന്ന് പറയണം ആ വിളിച്ച് പറഞ്ഞാൽ മതി

ഫുഡിന്റെ ഡീറ്റെയിൽസൊന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ വരുമ്പോഴേക്ക് ഒന്ന് സെറ്റ് ആക്കിവെക്കാൻ പറ്റുകയുള്ളൂ

ആ പറഞ്ഞുതരും പറഞ്ഞുതരും

ആ വരുന്ന അന്ന് വിളിച്ചാൽ മതി